മലപ്പുറത്ത് കുറേ ഗതാഗത സൗകര്യങ്ങളൊക്കെയുണ്ട് ഉദാഹരണം വിമാനത്താവളം പിന്നെ റെയിൽവേ വിമാനത്താവളം ഒരു സാധാരണ മന്സന് സാധാരണക്കാരന് ഇതാക്കാൻ കജൂല്ല നല്ല കത്തുന്ന പൈസയാണ് പിന്നെ റയിൽവേ അതൊരു പാവപ്പെട്ട സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ നമ്മളെ മലപ്പുറത്ത് നമ്മളെ കേരളത്ത്ത്തെ റോഡ് എന്നു പറഞ്ഞാല് അതില്ക്കൂടൊരു പ്രസവിച്ച് കിടക്കണൊരു പെണ്ണ അതില്ക്കൂടെ പോകുവാണെങ്കില് ആ പെണ്ണപ്പത്തന്നെ പ്രസവിക്കും അങ്ങനത്തെ റോഡാണ് അത്രയും കുണ്ടും കുജ്ജ്യാണ് ഇതെത്ര തന്നെ നന്നാക്കാൻ പറഞ്ഞാലും നാന്നാക്കില്ലല്ലോ പക്ഷേ ഒന്നാന്നറിയാം നമ്മുടെ നാട്ടിലുമുണ്ട് നല്ല കുറച്ച് റോഡ് അത് പക്ഷേ ഗവണ്മെൻറ്റല്ല ഉണ്ടാക്കിയത് സ്വകാര്യ വ്യക്തികളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടവിടെ നന്നായിട്ട് നില്ക്കുന്നുണ്ട് പക്ഷേ ഗവണ്മെന്റുണ്ടാക്കിയത് ഒക്കെ പൊളിഞ്ഞ് തകരാറായി കിടക്കുകയാണ് എൻ്റെ നാട്ടിലന്നെണ്ട് ഒരു റോഡ് ആ റോഡ് നന്നാക്കി അതില്കൂടെ അടികൂടേ വെള്ളം പോകാൻ വേണ്ടി കുഴലൊക്കെയിട്ട് എന്നിട്ടാണ് കുഴലിട്ടിടത്ത് ടാറ് ചെയ്തിട്ടില്ല ഇപ്പോള് അവിടെ തന്നെ കിടക്കുകയാണ് പക്ഷേ നമ്മളുടെ നാട്ടിലുമുണ്ട് കുറച്ച് നല്ല റോഡുകളൊക്കെ അതിനിപ്പോള് കുറച്ചതിനാത്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ വിമാനത്താവളമൊക്കെ ഒരു സാധാരണ മനുസ്യന് താങ്ങാൻ കഴിയുന്നതല്ല റെയിൽവേ താങ്ങാൻ പറ്റും അതില് എ സീൻ്റെ സീറ്റ് അങ്ങനെ കുറേ മൂന്ന് സീറ്റുകളൊക്കെ ഉണ്ടല്ലോ ആ പക്ഷേ നമ്മളെ ഗവണ്മെൻറ്റുണ്ടാക്കിയ റോഡാണ് അത് വിറ്റ് റോഡാളാണ് മൊത്തം കുണ്ടും കുജ്ജും വെള്ളം ഒക്കെ പറന്റ്റ് റെഡിയാക്കിയാലല്ലേ ഹാ ഞാപ്പങ്ങനെ പാറയുന്നുണ്ട് നമുക്ക് നോക്കാം നമ്മുടെ മലപ്പുറത്ത് വേഗം നല്ല റോഡാക്കണ്ണ്ട്ട്ടോ ഞാന് പറഞ്ഞുതരാം ഇതൊക്കെയാണ് ഗതാഗതം കൊണ്ട് ഞാൻ പറയുന്നത്